വായ്പ്പയും ആദായവുമൊക്കെ നല്ല പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ സമൂഹത്തില് കാരണം ആൾക്കാരിൻ്റെ ആവശ്യങ്ങള് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന പണം അവർക്ക് ചേ എവിടാണ് ചെലവാക്കുന്നത് എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിവില്ല പലരും ബാങ്കില് പോയിട്ട് വായ്പ്പ വാണ്ടുന്നുണ്ടെങ്കിലും അത് തിരിച്ചടക്കുന്ന ഒര് ബോധമുണ്ടാവില്ല പിന്നെ ലാസ്റ്റ് ആ വീടിൻ്റെ ജെപ്തി ആകുമ്പോഴാണ് അവര് തിരിച്ചറിയുന്നത് ഓ അന്നത്തേതാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് അന്നത്തെ ആ ഒര് വായ്പ്പൻ്റെ സംഭവം മൊത്തത്തിൽ ഇപ്പഴും കൊടുത്തിട്ടില്ല അതിനെ കുറിച്ചൊരു ബോധം അവർക്ക് ഉണ്ടാവില്ല കാരണം എപ്പഴും സ്വന്തം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ടൈം സമയത്തുള്ള ആവശ്യങ്ങള് മാത്രം നിറവേറ്റുകയാണ് പലവരും ചെയ്യുന്നത് ബാക്കി ഉള്ള സാധനങ്ങള് അല്ലെങ്കില് സേവനങ്ങളെപ്പറ്റീയിട്ടൊന്നും ആരും ചിന്തിക്കുന്നില്ല പിന്നത് പോലെതന്നെ വായ്പ്പ എന്ന് പറയുന്നത് നം ബാങ്ക്കാര് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നൊരു അല്ലെങ്കിൽ സാ സൗജന്യമായിട്ട് തരുന്നൊരു സേവനല്ല അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ആപത്തുകളുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരറിവ് ഇന്നത്തെ ജനതക്ക് കൊടുക്കണം അതിന് പാഠ്യപദ്ധതിയിൽ ഇത്തരം ഇത്തരം വിവരങ്ങള് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്നത്തെ സമൂഹം ആവശ്യങ്ങളും അതുപോൽതന്നെ അവരുടെ സാധന സേവനങ്ങൾക്കും എല്ലാം വിലകള് ഉയർന്ന് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾല് വായ്പ്പയെ കുറിച്ചും ആദായത്തെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങള് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണമായിട്ടുള്ള കാര്യമാണ്